ഞാനിതുവരെ ഒരു പാചക ക്ലാസുകളിലും നേരിട്ട് പോയിട്ട് പങ്കെടുത്തിട്ടില്ല ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു വലിയ വലിയ ആള്ക്കാരുടെ അടുത്ത് പാചകങ്ങൾ പഠിക്കണമെന്നൊക്കെ പക്ഷേ ഇതുവരെ ഒരാളുടെയടുത്തും പോയിട്ട് പഠിച്ചിട്ടില്ല കൂടാതെ ഫോണില് നോക്കി അത്യാവശ്യം പഠിക്കാറുണ്ടായിരുന്നു

നമ്മുടെ കേക്കുകള് ഉണ്ടാക്കാനും അപ്പം ചുടാനും അതുപോലുള്ള വേവിച്ചെടുക്കേണ്ടത് റൊട്ടി ഉണ്ടാക്കുന്നതൊക്കെ അതൊക്കെ ഓണ്ലൈനായി ഞാന് പഠിക്കാന് നോക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങള് ഉണ്ടായിരുന്നു ബിരിയാണി ആക്കുന്നതും പലതരം മധുരമുള്ള പലഹാരങ്ങള് ആകുന്നതൊക്കെ പഠിക്കാനൊക്കെ അതൊക്കെയാണ് എന്റെ ആഗ്രഹങ്ങള് പക്ഷേ ഇതുവരെ ഒരു ക്സാസ്സുകളിലും നേരിട്ട് പോയി പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല ഇതുവരെ പോയി പങ്കെടുത്തിട്ടുമില്ല എനിക്ക് ഒരുപാട് പഠിക്കാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് പലഹാരങ്ങളുണ്ട് നമ്മുടെ മീന് കറികളും ഇറച്ചി കറികളും ബിരിയാണികളും പലതരത്തിലുള്ള പല പലഹാരങ്ങളും ഉണ്ടാക്കാനൊക്കെ പഠിക്കാനുള്ള ആഗ്രഹങ്ങൾ ഒരുപാട് ഞാൻ